ആ ഇത് നമ്മുടെ പന്തളത്തുള്ള സൂപ്പർമാർക്കറ്റ് ആണോ ആ അവിടെ ഈ സാധനങ്ങൾ ഈ സ്കൂളിലെ ബ്യാഗ് അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയാണോ സാധനങ്ങളൊക്കെ ഉണ്ടോ ആ എല്ലാ സാധനവും ലഭിക്കുന്ന കടയാണല്ലേ ആ എനിക്ക് നമ്മുടെ കുഞ്ഞിന് കൊച്ചുകുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ടെ ഒരു ബ്യാഗ് ബേണം അതിനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ബ്യാഗ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെയൊക്കെ നിർബന്ധങ്ങൾ അറിയാമല്ലോ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ അവർക്കുള്ള ആഗ്രഹം പടങ്ങളൊക്കെ ഉള്ള ബാഗ് വേണം അപ്പം അങ്ങനെയൊക്കെ എല്ലാ കമ്പനികളുടെയും ബ്യാഗുണ്ടോ അവിടെ

ഒരാഴ്ച്ച ഒക്കെ ആവും എന്ന് പറയുമ്പോൾ ഒരാഴ്ച്ച കഴിഞ്ഞല്ലേ അവനെ പള്ളിക്കൂടത്തിൽ വിടാൻ പറ്റൂ പിന്നെ അങ്ങനെയാണ് എങ്കിൽ

അ നീല കളറിലെ ബ്യാഗ് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പം അതിൻ്റെ പ്രൈസ് എത്രയാണ് എങ്ങനെയാണ് വലിയ കുഞ്ഞുങ്ങൾക്ക് ആണ് വലിയ ഡിസൈൻ വലിയ ബ്യാഗ് വേണ്ട കേട്ടോ കൊച്ചു കുഞ്ഞിനാ നഴ്സറി വിടുന്ന കുട്ടിക്കാ

ആ അങ്ങനെ ഉള്ള കുഴപ്പം ഉണ്ട് അതുകൊണ്ട് ആ കളറ് തന്നെ വേണം കുട്ടികളെ നിർബന്ധം അറിയ്യത്തില്ലെയോ മാഡത്തിനും കുട്ടികൾ ഒക്കെ ഇല്ലെയോ അല്ല താൽക്കാലികമായിട്ട് ഇപ്പം അവന് അത് നമുക്ക് അതിനകത്ത് ഡിസൈൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വിഷയം ഇല്ല അത് ഏതെങ്കിലും മതി ബ്യാഗെൻ്റെ പുറമേ കാണുന്ന സാധനം